എനിക്ക് പ്രിയപ്പെട്ട പുസ്തകം ഏതാന്ന് വെച്ചുകഴിഞ്ഞാല് ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കഥ ഒരാളുടെ ജീവിത കഥ പറഞ്ഞു കൊണ്ട് തുടങ്ങുന്ന പുസ്തകമാണെങ്കിലും ഇതില് ഇതിലൂടെ ഈ പുസ്തകത്തിൽ കഥ കഥയല്ല പറയുന്നത് ഇതിൽ ഈ ഒരു ജെയിംസ് ക്ലിയറിൻ്റെ കോളേജ് കാലങ്ങളിലുണ്ടായ കുറച്ചു കുറച്ചയാളുടെ ശീലങ്ങളിൽ അയാൾ വരുത്തിയ മാറ്റങ്ങൾ അതിലൂടെ അയാൾക്ക് നേടിയെടുക്കാൻ പറ്റിയ കാര്യങ്ങളെ പറ്റിയാണ് ഇതിൽ പറയുന്നത് ഈ പുസ്തകം തുടങ്ങുന്നത് ജെയിംസ് ക്ലിയറിൻ്റെ കോളേജ് വിദ്യാഭ്യാസ പഠനകാലങ്ങളിൽ പുള്ളി ചെയ്തിരുന്ന ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ അയാളുടെ സ്വഭാവ ശീലത്തിൽ അയാൾ കൊണ്ടുവന്നിരുന്ന ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ അതായത് രാവിലെ കോളേജിൽ പോകുന്നതിനു മുന്നേയായി ഷീറ്റ് ബെഡ് ഷീറ്റ് മടക്കി വയ്ക്കുമായിരുന്നു രാത്രി അയാളുടെ സുഹൃത്തുക്കളും സഹപാഠികളുമൊക്കെ ക്ലബ്ബുകളിലും ഇങ്ങനെ ഓരോ എൻജോയും എൻജോയ് ചെയ്യാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയങ്ങളിൽ ഇദ്ദേഹം റൂമിലിരുന്ന് ഒരു ഇന്ന സമയം ഇദ്ദേഹത്തിന് എന്ജോയ് ചെയ്യാൻ ഒരു ഇത്ര സമയം എന്നുപറഞ്ഞ് മാത്രം ഇയാൾ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ ഇയാൾ റൂമിലിരുന്ന് ഇയാൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും പഠിക്കുകയും എഴുതാനുള്ള അസൈമെൻ്റക്കെ എഴുതുകയും അങ്ങനെയൊക്കെ ചെയ്യുകയ് വളരെ നേരത്തേ തന്നെ ഉറങ്ങുകയും ചെയ്തു അങ്ങനെ ചില ചില കാര്യങ്ങൾ ഇയാൾ കോളേജിൽ പഠനകാലങ്ങളിൽ ചെയ്തു ചെയ്തു തുടങ്ങിയതിനോട് അനുബന്ധിച്ച് തന്നെ ഇയാള്ക്ക് വലിയ നേട്ടങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോള് ഈ ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇയാള്ക്ക് ഇങ്ങനെ ഒരു വലിയ നേട്ടം ഇയാള്ക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു വഴിയായിട്ടാണ് ഇയാൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും സ ബേസിക്കായിട്ട് ചെയ്യുന്ന കുറച്ചു കാര്യങ്ങൾ അയാള് വ്യത്യാസം വരുത്തിയപ്പോൾ ഇയാള്ക്കതൊരു വലിയ സക്സസിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയെന്നാണ് ഇയാൾ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോള് ഈയൊരു പുസ്തകത്തിൽ എന്താണ് പറയുന്നതെന്നു വച്ചു കഴിഞ്ഞാൽ ചെറിയ ശീലങ്ങളുടെയും വർദ്ധിച്ചുവരുന്ന മാറ്റങ്ങളുടെയും ഒരു പരിവർത്തന ശക്തിയെ കാണിക്കുകയാണ് ഇ ഈ ബുക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു സ്വയം സഹായ പുസ്തകമാണിത് നല്ല ശീലങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും മോശമായവ തകർക്കുന്നതിനും എന്താ പറയുക മോശമായത് തകർക്കാനും തകർക്കാനെന്നുദ്ദേശിക്കുന്നത് മോശമായത് ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ന നമ്മളെ സഹായിക്കുന്ന ഒരു ബുക്കാണിത് നമുക്കതിനായിട്ടുള്ളൊരു വഴി അത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്ന് കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണ് ഇത് നമ്മള് തുടർച്ചയായി ഒരു ശീലം തന്നെ മെച്ചപ്പെടുത്തി എടുത്തുകൊണ്ടു വരികയാണെങ്കിൽ നിരന്തരമായി നമ്മള് ഒരു ശീലം തന്നെ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി കൊണ്ടുവരുകയാണെങ്കിൽ നമ്മളുടെ വ്യക്തിത്വത്തെ തന്നെ അത് വളരെയധികം സ്വാധീകരിക്കും നമ്മളുടെ വ്യക്തിത്വത്തെ അത് വളരെയധികം മാറ്റം കൊണ്ടുവരും നമ്മളത് നമ്മുടെ ഓരോ ദിവസം നമ്മള് ചെയ്യുന്ന കാര്യങ്ങളും നിരന്തരമായി ചെയ്തു വരുമ്പോള് നമുക്കതു പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അതു മാറും അതുകാരണം തന്നെ നമുക്ക് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഒരു മനസ്സും ഉണർന്നിരുന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ബോധവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിത്തരും ഇതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് മൊത്തത്തിൽ പറയുവാണെങ്കില് അറ്റോമിക് ശീലങ്ങൾക്ക് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഈ അറ്റോമിക് ശീലങ്ങൾക്ക് വ്യക്തികളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്ത വരുത്തുന്നതിനുള്ളൊരു പ്രായോഗിക ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ടൈം ടേബിൾ പോലെ നമുക്ക് ഈ ബുക്കിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ശീലരൂപീകരണത്തിന് ചിട്ടയായതും ഐഡന്റിറ്റി അടിസ്ഥാനമാക്കിയുള്ളതുമായ ഒരു സമീപനമാണ് നമുക്കീ സ്വീകരിക്കാനാണ് ന ഇത് വായനക്കാരിൽ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ഇത് എന്നെ ഏറ്റവും കൂടുതല് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ കുഞ്ഞുകുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ജീവിതകാര്യങ്ങൾക്കാണെങ്കിലും നമ്മുടെ സ്വഭാവത്തിനാണെങ്കിലും നമ്മളുടെ മാനസികാവസ്ഥയെ ആണെങ്കിലും അത് നല്ല രീതിക്ക് വളർത്തുന്നതായിട്ടാണ് എനിക്കീ പുസ്തകം വായിക്കുമ്പോള് തോന്നിയിട്ടുള്ളത് തോന്നിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതും